ആ ഷോപ്പ് ആൻഡ് ഷോപ്പ് ഹൈപ്പർമാർക്കറ്റ് അല്ലേ ആ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു ഓ ഇപ്പം ജ് ആ എനിക്ക് കുറച്ച് ബനാന വേണമായിരുന്നു ഇപ്പോൾ എന്ത് വിലയാണ് ബനാന ആ ബനാനയ്ക്ക് എന്ത് വിലയാണ് നൂറിന് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ആ അപ്പുറത്തെ കടയിൽ ചെന്നപ്പോഴത്തേക്കും ബനാന ഇപ്പോൾ ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞു അതാണ് ഉണ്ടല്ലോ അല്ലേ ആ ഓ എനിക്കൊരു മൂന്ന് കിലോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ആ ഓക്കെ അത് ബനാന പഴുത്തതും അത് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയ പരുവത്തിലുള്ള മറ്റ് ബനാനയും കാണുമോ വിളഞ്ഞത് അല്ല അല്ല എനിക്ക് പഴുത്തത് മൂന്നും പച്ച രണ്ട് കിലോയും എനിക്ക് ചിപ്സ് ഉണ്ടാക്കി ആ ആ അതെ ആ അത് പിന്നെ നമുക്ക് ജാക്ക്ഫ്രൂട്ട് ഉണ്ടോ ചക്ക ആ

ആ എങ്ങനെയാണ് അതിൻ്റെ വില എങ്ങനെയാണ് കിലോ ഓ ഓക്കെ നൂറ്റി ഇരുപത് ആ ഓക്കെ എനിക്ക് വിളഞ്ഞത് വേണം പച്ച ഉണ്ടെങ്കിൽ പച്ച ആ നമുക്ക് നല്ല വിളഞ്ഞ ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയത് ഉണ്ടെങ്കിൽ അങ്ങനെയും ആ അതും വേണം ഒരെണ്ണം നല്ല പഴുത്തത് നമുക്ക് ഇപ്പം കഴിക്കാൻ പറ്റിയ രീതിയിൽ ഉള്ളത് ഉണ്ടെങ്കിൽ അതും വേണം അപ്പം അപ്പോൾ ഇത് രണ്ടിനും വില വ്യത്യാസം ഉണ്ടോ പച്ചയ്ക്കും പഴുത്തതിനും തമ്മിൽ എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടോ ഓക്കെ അപ്പോൾ എനിക്കിത് മുഴുവനും വേ വേണം ഞാൻ കൊണ്ട് വന്നിട്ട് മുറിച്ചെടുത്തോളാം അപ്പം ഏകദേശം ഒരു എത്ര കിലോ വെയിറ്റ് വരും ഒരു ആവറേജ് വെയിറ്റ് എത്ര കിലോ വരുമായിരിക്കും ഓക്കെ ഓക്കെ എനിക്ക് അപ്പോൾ പച്ചയായിട്ട് ഉള്ളതൊരു ഫോർ ഫൈവ് കിലോയുടെ ആണെങ്കിലും കുഴപ്പം ഇല്ല പഴുത്തത് എനിക്ക് അത്രയും അത്രയും വെയിറ്റ് ഉള്ളത് വേണ്ട ആ ഓക്കെ ആ അങ്ങനെ അത് രണ്ടെണ്ണം വേണം ആ മതിയാവും മതിയാവും മതിയാവും ഓക്കെ ആ ആ അപ്പം ആ ഹോം ഡെ ഇല്ല ഹോം ഡെലിവറി വേണം ഞാൻ എൻ്റെ ലൊക്കേഷൻ ആ ആ ഓക്കെ പിന്നെ നമുക്ക് പപ്പായ കിട്ടുമോ ആ പഴുത്തത് അതായത് പഴുത്തത് മീൻസ് എനിക്ക് ഇപ്പം ഉടനെ എടുക്കാനുള്ളതും വേണം രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കാനുള്ളതും അപ്പോൾ അത്ര ഒന്ന് നല്ലത് പഴുത്തതും ഒന്ന് അധികം പഴുക്കാത്തതും ആയിട്ട് അതൊരു മൂന്ന് കിലോ രണ്ടും കൂടെ ഒര് മൂന്ന് കിലോ മതി ആ അതെ ആ ഇല്ല നമുക്ക് പഴുത്ത മാങ്ങാപ്പഴം ഉണ്ടോ ആ നീല ആ നീ ഓ നീലൻ മാങ്ങയുണ്ടോ നീലൻ മാങ്ങ ഓക്കെ എനിക്ക് അതൊരു മൂന്ന് ആ ആ അത് പഴുത്തത് വേണം എനിക്കത് പഴുത്തത് വേണം അത് ജ്യൂസ് ആക്കാനും ആ അതെ അതെ അപ്പോൾ അതൊരു ആ ഓക്കെ അതൊരു മൂന്ന് കിലോ അതും എടുത്തേ അതും ഒരു മൂന്ന് കിലോ ആയിട്ട് എടുത്തേക്ക് ആ അപ്പം നമുക്ക് ആ ആ നമുക്ക് ഹോം ഡെലിവറിക്ക് ചാർജ് ഉണ്ടോ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ഇത് ഞാനിപ്പം എത്ര ഐറ്റം ജാക്ക്ഫ്രൂട്ട് മാംഗോ പിന്നെ ബനാന ബനാന ആ ഓക്കെ ആ അപ്പോൾ ഇത് ഓക്കെ മാം പിന്നെ എനിക്ക് പേയ്മെൻറ് എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ് എടുക്കുമല്ലോ അല്ലേ അതോ ഡെലിവറി ബോയുടെ ഓക്കെ ഓക്കെ ആ അപ്പം ആ എൻ്റെ അഡ്രസ്സ് ഹിമ റോയി പുളിമൂട്ടിൽ നിയർ സെൻറ് ജോസഫ് ചർച്ച് പൂവം ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് ആവുമെന്ന് പറയണം കേട്ടോ ഇപ്പം ഞാൻ ഒന്നുകിൽ ഓൺലൈൻ പേയ്മെൻറ് ആയിട്ടാണെങ്കിലും നടത്തിയേക്കാം ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു